ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ കണ്ടിട്ട് ഒരു എന്താ ഇൻഡക്ഷൻ കുക്കറ് മേടിച്ചായിരുന്നു എന്നാ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കുകയായിരുന്നു അത് ഞാൻ രണ്ട് മാസം മുന്നേ എന്താ ഇപ്പം പറയുക രണ്ട് മാസം മുന്നേ ഓർഡർ ചെയ്തതാണ് അതെൻ്റെ കയ്യിൽ കിട്ടി അതെൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞപ്പം അത് എല്ലാവരോടും ചോദിച്ചപ്പോൾ നല്ലതാന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പം അതിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം എല്ലാം തന്നെ ലൂസ് ആയിരുന്നു എനിക്കതിഷ്ടപ്പെട്ടില്ല ഞാൻ പിന്നെ അത് ഉപയോഗിച്ച് നോക്കിയപ്പം അതില് വിസിലൊന്നും അങ്ങനെ അടിക്കാറൊന്നുമില്ല എന്നിട്ട് ഞാൻ എന്താ പറയുക മാറ്റിപ്പിടിക്കാൻ അത് ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടാണ് അത് മേടിച്ചത് പക്ഷേ എല്ലാവരും പറഞ്ഞത് നല്ലതാണെന്നാണ് പക്ഷേ എനിക്കത്ര നല്ലതായിട്ട് തോന്നിയില്ല ഞാൻ എന്നിട്ട് അതിന് വേണ്ടി അത് പിന്നെ സെർച്ച് ചെയ്ത് അതിൻ്റെ റിട്ടേണയക്കാൻ നോക്കിയപ്പം അതിൻ്റെ വാരണ്ടി അങ്ങനെ വാരണ്ടി ഇല്ലായിരുന്നു ഉപയോഗിക്കാനൊക്കെ നല്ലതായിരുന്നു പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കണ്ടപ്പം നമ്മളോർത്തു നല്ല സാധനമായിരുന്നു പക്ഷേ ഇത്ര നല്ല ക്വാളിറ്റിയൊന്നുവില്ലെങ്കിലും അത് വിസിലടിക്കുന്നില്ലായിരുന്നു ഞാൻ എന്നിട്ട് ഇതിന് കംപ്ലെയിന്റ് എന്താണെന്ന് അവരോട് വിളിച്ചൊക്കെ ചോദിച്ച് അന്വേഷിച്ച് ഇത് മേടിച്ച ഫോണിൽ എല്ലാം ആപ്പിൽ കൂടെ എല്ലാം ചോദിച്ചപ്പം അവര് പറയുന്നത് ഞങ്ങള് നിങ്ങൾക്ക് തന്നപ്പം വേറേ ഒരു കുഴപ്പമില്ല അത് നിങ്ങളുടെ ഇരുന്നിട്ടിപ്പം മിസ്സായേന്നാ മിസ് എന്തോ നിങ്ങള് എന്തോ ചെയ്തെന്നാണ് അവര് പറയുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നാ അല്ലാതെ തന്നെ അവര് ഞങ്ങൾക്ക് തന്നപ്പം എന്തൊക്കെ കുഴപ്പം ഉണ്ടായിരുന്നു കമ്പനി പറഞ്ഞാൽ നല്ലൊരു സധന്മായിരുന്നു പക്ഷേ ഞാനത് കേട്ടിട്ടായിരുന്നു നല്ല സാധനമാണ് എന്ന് പറഞ്ഞ് മേടിച്ചത് പക്ഷേ ഇങ്ങനെ ആകുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീഷിച്ചില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ആദ്യം കണ്ടപ്പം എല്ലാവരുടെയും കണ്ടപ്പം എനിക്കും മേടിക്കണം എന്നൊരു മോഹം തോന്നി അങ്ങനെ മേടിച്ചതാണ് പക്ഷേ ഇങ്ങനെ വരുവെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത്യാവശ്യം നല്ല രണ്ട് രണ്ട് ലിറ്ററൊക്കെ കൊള്ളുന്ന ഇതായിരുന്നു രണ്ട് ലിറ്ററ് വെള്ളം ഒക്കെ കൊള്ളുന്ന ലിറ്ററ് ഇത് കുക്കറായിരുന്നു ഇൻഡക്ഷൻ കുക്കറ് അപ്പം ഇപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഇല്ല അവര് മാറ്റിത്തരുവോന്നറിയത്തില്ല മാറ്റ് തരികയായിരുന്നേല് നല്ലതായിരുന്നു പിന്നെ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് അതിൻ്റെ എല്ലാം തന്നെ ലൂസായിരുന്നു അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എങ്കിലും അതിൻ്റെ കളറ് വ്യത്യാസം അത് കുറച്ച് പോറിയും ഇതൊക്കെ ആയിരുന്നു ഇവര് തന്നതിൽ ഒത്തിരി കമ്പ്ലൈൻറ്റുണ്ട് ഇവര് നല്ല രീതിയിൽ അല്ല കൊണ്ടുതന്നത് പാക്കിങ്ങൊക്കെ വളരെ മോശവായിരുന്നു